ഞാൻ ഈയിടക്കൊരു ഡ്രിൽ മെഷീൻ മേടിച്ചിട്ടുണ്ടാരുന്നു അപ്പോൾ എൻ്റെ ഈ വീട്ടില് കുറച്ച് പണീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ഡ്രിൽ ചെയ്യാനും പിന്നെ എലെക്ട്രിക്കലിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇടാൻ പിന്നെ അതുപോലത്തെ കുറച്ച് കാര്യങ്ങള് ലെയിൻ വരയ്ക്കാനും കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അത്യാവശ്യം നല്ലൊരു കമ്പനിയുടെ റിൽവിറ്റ് തന്നെയാണ് ഡ്രില്ലും ഇതാണ് വേടിച്ചത് കുഴപ്പം ഇല്ലാത്തൊരു എക്സ്പീരിയൻസ് ആരുന്നു എനിക്ക് അതിൽ നിന്ന് ഉണ്ടായിരുന്നത് ഏകദേശം ഇപ്പോൾ നമ്മള് ഞാൻ മുൻപ് ഉപയോഗിച്ചിരുന്ന ഡ്രില്ലിനെ വെച്ച് നോക്കുമ്പോൾ കൊറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ട് അതെനിക്ക് ഹാൻഡില് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നതുപോലെ അധികം നമുക്ക് കൈ അങ്ങനെ വേദനിക്കുവോ അങ്ങനൊന്നുമില്ല പ്രെഷറ് നമ്മള് എത്ര പ്രെഷറിപ്പോൾ നല്ല ഹാർഡ് സർഫസാണ് ഇപ്പം കല്ലാ കോൺക്രീറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡ്രില്ല് ചെയ്യാണെങ്കിലും അത്ര പ്രശ്നം തോന്നിക്കുന്നില്ല ഇപ്പം ഡ്രിൽബിറ്റും കുഴപ്പമില്ല അങ്ങനെ പെട്ടന്ന് ചൂടാകണൊന്നുമില്ല പഴയ ഡ്രിൽ ഡ്രിൽബിറ്റെന്നു പറയുമ്പോൾ പെട്ടെന്ന് ചൂടാകണ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ യാതൊന്നുമില്ല അത്യാവശ്യം നല്ല ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്